ഞങ്ങൾ ശേഖരിച്ച സ്റ്റാമ്പുകൾ നാണയങ്ങൾ കല്ലുകൾ അങ്ങനെയൊക്കെയുള്ളത് ഒരുപാടുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് സ്റ്റാമ്പ് കളക്ഷൻ നാണയങ്ങളൊക്കെ കളക്ഷൻ ചെയ്യുന്ന പ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടത് പിന്നെ പ്രദർശനം ചെയ്യുകയും എല്ലാവർക്കും കാണിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നാണയമെന്നു പറഞ്ഞാൽ നാണയമാണ് ക പിന്നെ ച ആദ്യകാലത്തെ അൻപത് പൈസ ഇരുപത്തഞ്ച് പൈസ പത്ത് പൈസ അങ്ങനെയുള്ള പൈസകളൊക്കെയാണ് ഈ ചില്ലറയായിട്ടാണ് ക പിന്നെ ദുട്ടുകൾ നാണയങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ ഇന്നത്തെ കാലത്തൊന്നും ഇല്ല അത് ആദ്യ കാലത്തു തന്നെ ഉള്ളൂ ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു രണ്ട് മൂന്ന് ആളുകളുടെ കയ്യിലുണ്ടാകും ഇങ്ങനെ സ്റ്റാമ്പ് കളക്ഷനൊക്കെ ഉള്ള ആളുകളുടെ കയ്യിലൊക്കെ ഉണ്ടാകും അങ്ങനത്തെയൊക്കെയിത് പിന്നെ സ്റ്റാമ്പുകൾ എന്നു പറഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് രൂപേൻ്റെ അഞ്ച് രൂപേൻ്റെയും പത്ത് രൂപേൻ്റെയൊക്കെ സ്റ്റാമ്പുകളൊക്കെ നമുക്ക് സ്കൂളിൽ നിന്നു തന്നെ കിട്ടാറുണ്ട് അങ്ങനെയുള്ള സ്റ്റാമ്പുകളൊക്കെയുണ്ട് അതൊക്കെ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ട് പ്രദർശനമൊക്കെ ചെയ്യാറൊക്കെയുണ്ട്